ആധുനിക ലോകത്ത് മലയാള ഭാഷ ഒരുപാട് വെല്ലുവിളികള് നേരിടുന്നുണ്ട് കാരണം കൂടുതല് ആള്ക്കാരുമിപ്പോൾ ഇംഗ്ലീഷ് ഭാഷയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് കൂടുതലാള്ക്കാരും കേരളത്തില് നിൽക്കുന്നതിനേക്കാളുപരി പുറത്തേക്ക് പോകാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ മലയാള ഭാഷയുടെ പ്രാധാന്യം വളരെ കുറഞ്ഞു വരുന്നുണ്ട് പിന്നെ കേരളത്തിലുള്ള മാതാപിതാക്കളാണെങ്കില് തന്നെ അവരുടെ മക്കളെ കൂടുതലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലാണ് ചേര്ക്കാന് താല്പര്യപ്പെടുന്നത് അവര്ക്ക് കൂടുതലും ഇംഗ്ലീഷ് ഭാഷയോടൊരു ചായ്വ് അല്ലെങ്കില് സ്നേഹം വളര്ത്തിയെടുക്കാനാണ് മാതാപിതാക്കള് ശ്രമിക്കുന്നത് കാരണം അത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ ഭാവിയിൽ എന്നാണ് അവരുടെ ഒരു ചിന്താഗതി എന്നാൽ നമ്മുടെ വേരുള്ളത് അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം ഉള്ളത് നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിലാണ് എന്ന കാര്യം അവരെല്ലാവരും മറന്നു പോകുന്നു മാതൃഭാഷയ്ക്കുള്ള പ്രാധാന്യത്തെ പറ്റി ഇന്ന് ആര്ക്കും ഒരു ബോധ്യം ഇല്ല എന്നുള്ളതാണ് സത്യം പിന്നെ മലയാള ഭാഷയ്ക്ക് എഴുത്തുകൾ കുറഞ്ഞു വരുന്നു കൂടുതലും ഇംഗ്ലീഷിലൊക്കെയാണ് എഴുത്തുകൾ ഉണ്ടാവുന്നത് പിന്നെ മലയാളത്തിലുള്ള നല്ല നല്ല കലാരൂപങ്ങൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നു മലയാളത്തിന് പ്രാധാന്യം ഇപ്പം കുറഞ്ഞു വരികയാണ്